ആ ആരാ ഇത് ഹലോ ആ ആ ആ ആ അതാ സാറേ നോക്കു ഇല്ല അല്ല അല്ലല്ല സാറേ ഞാന് ഇതിന് മുമ്പൊക്കെ പുതുക്കിയതാണ് ഇപ്പോൾ ഈ പ്രാവശ്യമാണ് എനിക്കിതിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഇതായതാണ് മറ മുമ്പൊക്കെ പുതുക്കിയത് തന്നെയാണ് ഈ പ്രാവശ്യം മാത്രമെ ഒര് പുതുക്കാനൊരിത് വന്നിട്ടുള്ളു അതെ ഞാനെന്താണെന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ട് അതെ ആ അതെ അതെ ആ പത്ത് വർഷത്തില് പറഞ്ഞാൽ ഈ ഒരു ഇതിലെ ഈയൊരൊറ്റ ഒരു പ്രാവശ്യത്തേക്ക് മാത്രമേ ഉള്ളു എനിക്ക് ഈയൊര് പാളിച്ച പറ്റിയിട്ടുള്ളു ഇതിന് മുമ്പൊക്കെ ഞാൻ എല്ലാ കൊല്ലവും ആ ഇൻഷൂറും ടാക്സും എല്ലാം ഞാൻ കൃത്യമായിട്ട് അടയ്ക്കലുണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാമല്ലൊ ആ സാറേ സാറേ ഒര് ഒറ്റ തവണത്തേക്ക് ക്ഷമിക്ക് ഞാനത് പിന്നെ ഉടനെ അടച്ചോളാം അടച്ചോളാം അല്ല അല്ല എനിക്ക് ആ എനിക്കൊരു പാളിച്ച പറ്റിയത് തന്നെയാണ് ഞാന് ക്ഷമ ചോദിക്കുന്ന് ഞാന് അടച്ചോളാം പെട്ടെന്ന് അടച്ചോളാം അല്ല സാറേ ഞാനിതിൻ്റെ മുമ്പിത് ഒറ്റ പ്രാവശ്യം ഇതിൻ്റെ ഒര് വീഴ്ച വരുത്തിയിട്ടില്ല ഈ ഒരൊറ്റ തവണത്തേക്ക് മാത്രമുള്ളു അതെൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഒര് ചെറിയൊര് പാളിച്ച പറ്റിയതാണ് ഒറ്റ തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ച് കൂടെ ഇല്ല ഇനി നാളെ തന്നെ അടച്ചോളാം

ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഫാമിലിയിൽ ചെറിയ ഇല്ലില്ലല്ല ഇനി അങ്ങനെ സംഭവിക്കില്ല ഒറ്റത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക് സോറി സോറി അതെ അറിയാം അടിയാം പക്ഷെ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയത് കൊണ്ട് അയലാ അതില് ശ്രദ്ധയൊന്ന് പാളിച്ച പറ്റിയതാണ് ഒരൊറ്റ ത്തവണത്തേക്ക് ക്ഷമിക്ക് പ്ലീസ്

ആ ഓക്കെ